ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആപ്പുകള് എനിക്കുതോന്നുന്നത് ഏ റ്റവും അധികം ഉപയോഗിക്കുന്ന ആപ്പുകള് ഈ പുതു തലമുറയില് ഇൻസ്റ്റാഗ്രാമും മറ്റിലേക്കും കൂടുതല് പോയെങ്കിലും പഴയ തലമുറയും പുതിയ തലമുയും എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യുന്നത് വാട്സപ്പാണ് അതു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാട്സാപ്പിൻ്റെ നേരത്തെ റെക്കോർഡെയ്ത കാര്യങ്ങളൊക്കെ കുറച്ചു സമയം മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുമായിരുന്നുളളു മൂന്ന് മിനിറ്റില് താഴെ ഉള്ള വീഡിയോയാണ് അയക്കാൻ പറ്റുമായിരുന്നത് ഇപ്പോൾ അത് മൂന്ന് മിനിറ്റിൻ്റെ മുകളിലേക്കുകൂടി അയക്കാനുള്ള സംവിധാനങ്ങള് ഒരുക്കിയിട്ടുണ്ട് പുതിയ പുതിയ വേർഷനുകള് വാട്സാപ്പ് മാറി മാറി ഇറക്കുന്നതുകൊണ്ടുതന്നെ ആളുകള്ക്കതു കൂടുതൽ പ്രാപ്യമാണ് ആളുകള് എളുപ്പത്തിൽ ഈസിയായിട്ടത് കൈകാര്യം ചെയ്യാൻ അല്പം പ്രായമായവർക്കുപോലും സാധിക്കും ആ ഏത് കാര്യങ്ങളും ഇപ്പോൾ നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെങ്കില് ആ ഫോട്ടോസ്റ്റാറ്റിലേക്ക് സെൻ്ററിലേക്ക് കാര്യങ്ങള് എത്തിച്ചു കൊടുക്കാൻ ഫോണിൽനിന്ന് നേരിട്ട് അതു സെൻ്റ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഫോട്ടോകോപ്പി നമുക്ക് പ്രിൻ്റെയ്യാൻ പറ്റും വാട്സാപ്പിൻ്റെ ഇങ്ങനെയുള്ള വിപലമായ സാധ്യതകള് ഇപ്പോഴാ വാട്സാപ്പ് നമുക്ക് ഉപയോഗിക്കുമ്പോഴാണാ സാധ്യകളെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാവുക അപ്പോൾ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് സൗകര്യം നമുക്ക് ഫോണിൽ ഓൾറെഡി ഉണ്ടതിന് ഒരുപാട് ഒരുപാട് സാങ്കേതിക വിദ്യകള് പുതിയ തലമുറയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മോഡവും വൈഫയ്യും മറ്റു കാര്യങ്ങളെല്ലാമായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഫോണില് ചാർജെയ്യുക റീച്ചാർജെയ്യുക ഇങ്ങനെ ധാരാളമായിട്ട് അതുണ്ട് പക്ഷെ ഈ വാട്സാപ്പിൻ്റെ ഒരു ഉപയോഗത്തെപ്പറ്റിയാണ് നമുക്ക് ഏറ്റവും അധികം പറയേണ്ടിയിരിക്കുന്നത് നമ്മുടൊരു ചിത്രം തൽസമയം നമ്മള് നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ എടുത്ത് അയച്ചുകൊടുക്കാം ഫോട്ടോ എഡിറ്റിങ്ങിനുള്ള സാധ്യതകള് ഇതെല്ലാം നമ്മളിടുന്ന മെസ്സേജ് ആ മെസ്സേജ് നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് എഡിറ്റെയ്യാൻ പറ്റും അപ്പോൾ അത് വാട്സാപ്പിൻ്റെ ഒരു സവിശേഷതയാണ് അപ്പോൾ മറ്റു പല ആപ്പുകള് ഇപ്പോൾ മ്യൂസിക്കിൻ്റെയൊക്കെ പല ആപ്പുകളുണ്ട് അതുപോലെ ഹോട്ട്സ്റ്റാര് പോലുള്ള ആപ്പുകള് ക്രിക്കറ്റ് ആപ്പുകള് അതുപോലെ ധാരാളം ഗെയിംസ് കുട്ടികളുടെ ഇടയിലൊക്കെ ഈ ഗെയിംസുകളാണ് അതുപോലെ എന്താണ് ഫയറിങ്ങും ഹണ്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ ആപ്പുകള് ഇതിലൂടെയെല്ലാമുണ്ട് ചെസ് കളിക്കുന്നതിനു പോലും ചെസ് മാസ്റ്റർ പോലുള്ള ആപ്പുകളുണ്ട് അപ്പോൾ ഈ ആപ്പുകള് ഓരോരുത്തരവരവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഉപയോഗിക്കുകയാണ് അപ്പോൾ വാർത്ത വായിക്കുന്നതിനു പത്ര മാധ്യമങ്ങളുടെ തന്നെ ആപ്പുകളുണ്ട് അത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ദിവസത്തെ ദിനപത്രങ്ങൾ മുഴുവൻ വായിക്കാൻ പറ്റും അപ്പോളിങ്ങനെ പക്ഷെ ഏറ്റവും മനുഷ്യന് ഏറ്റവും ആധുനികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങള് വാട്സാപ്പാണ് അതിലാളുകൾ രാവിലെ ഒരു ഗുഡ് മോണിങ്ങിൽ തുടങ്ങി പിന്നെ ഫോണിൽ നിറയുന്ന നൂറുകണക്കിന് മെസ്സേജുകളാണ് ഈ വാട്സാപ്പിൽനിന്നുള്ളത് ഇൻ്റർനെറ്റ് സൗകര്യം വേണമെന്നുള്ള ഒറ്റ പ്രശ്നമാണിതിനകത്ത് ഉള്ളത് ഇപ്പോള് ഇൻ്റർനെറ്റ് സൗകര്യമില്ലാത്ത ഫോണില്ല ഇൻ്റർനെറ്റ് സൗകര്യം ഇല്ലാത്ത റീചാർജില്ല അതുകൊണ്ടുതന്നെ ഈ വാട്സാപ്പിൻ്റെ കാര്യക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാൻ ഉതകുന്നവിധത്തിലുള്ള എല്ലാ പരിപാടികളും കമ്പനി ചെയ്യുന്നുണ്ട് ഗ്ലൂഗിൾ പ്ലേസ്റ്റോറില് തപ്പിക്കഴിഞ്ഞാൽ ആപ്പുകളുടെ പ്രളയമാണ് ഓരോ ആപ്പുകൾ ഇങ്ങനെ ഇടിച്ചിടിച്ചു നിൽക്കുകയാണ് ഏതു വേണം ഏതു വേണം എന്നുള്ള മട്ടില് അത് ഡൗൺലോഡ് അറിയാതെ കൈതൊട്ടു പോയാൽ ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്പുകളുടെ ഒരാധിക്യം തന്നെ നമുക്കിടയില് ഈ നടന്നുവരുമ്പോൾ വാട്ട്സാപ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയാനാണ് എനിക്ക് കൂടുതല് ഇഷ്ടം കാരണം ഏറ്റവും ആധുനികമായ എല്ലാവർക്കും സൗകര്യപ്രദമായ വിരൽത്തുമ്പിൽ നമുക്കു തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആപ്പാണ് പൊതുവേ ധന നഷ്ടം ഒന്നുമില്ല വാട്സാപ്പ് ഉപയോഗിച്ച് നമുക്കു പണമൊന്നും പോകുന്നില്ല ഇടയ്ക്ക് ഫേസ്ബുക്കിൽന്നും മറ്റും ചില കാര്യങ്ങൾ എടുത്തിടുമ്പോൾ അത് അതിലേക്ക് ഫേസ്ബുക്കിലേക്കു കയറിപ്പോകും ഫേസ്ബുക്കൊക്കെ കുറേക്കൂടി നമ്മുടെ കൺട്രോളിലല്ല വാട്സാപ്പ് നമ്മുടെ കണ്ട്രോളിലാണ് ഫേസ്ബുക്കിലേക്കു പോയിക്കഴിയുമ്പോൾ ഫേസ്ബുക്കൊരു ഒരു ഭൂരിപക്ഷ ആളുകള് ഉപയോഗിക്കുന്ന ഒരാപ്പാണ് പക്ഷെ ഫേസ്ബുക്കിലേക്കു കയറിവരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശ്ലീലമല്ലാത്ത മനസ്സിന് പിടിക്കാത്ത പല കാര്യങ്ങളും അതിലേക്കു തള്ളിക്കയറിവരുന്നത് നമ്മളുടെ ശ്രദ്ധയില്പ്പെടും നമ്മളീ തള്ളിക്കയറ്റം നമുക്കൊരു കുടുംബ സമേതം ഇരുന്നു കാണാൻ പറ്റുന്ന ഒന്നല്ല വാട്സാപ്പിൽ വരുന്ന നമുക്ക് ഭൂരിപക്ഷം മെസ്സേജുകളും നമുക്ക് ആവശ്യമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ഡിലീറ്റെയ്യാം വായിക്കണമെങ്കിൽ വായിക്കാം ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം അതിലേക്ക് മെസ്സേജുകള് അയയ്ക്കുന്നതു വേണ്ടെങ്കിൽ നമുക്കു നിരാകരിക്കാം നമുക്ക് തള്ളിക്കളയാനും തെരഞ്ഞെടുക്കാനുമുള്ള ഓപ്ഷനുകളുണ്ട് ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് ഡിലീറ്റെയ്യാം ആ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകള് നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമുക്കവരെ റിമൂവ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇത് ഒരാൾക്കു കിട്ടിയോ ഇല്ലയോ എന്നറിയാനുള്ള മാർഗം നമ്മളയച്ചിരിക്കുന്ന മെസ്സേജ് കണ്ടില്ലെന്ന് ഒരാൾക്കു പറയാൻ പറ്റില്ല അപ്പോൾ മെസ്സേജ് അയാൾക്ക് ഡൗൺലോഡ് ആയാൽ തന്നെ ഡബിൾ ടിക്ക് തെളിയുന്നുണ്ട് അത് അയാൾ വായിച്ചാൽ അയാൾ റീഡെയ്താൽ ആ ടിക്കുകൾ രണ്ടും ബ്ലൂ ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വാട്സാപ്പിൻ്റെ ഒരു സൗകര്യം ഇന്നത്തെ തലമുറയില് ഏതൊരു കാര്യത്തിലും നമുക്ക് തീരെ തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് ഇനിയും ഇത്തരം ആപ്പുകൾ ധാരാളം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രയോജന പ്രദമെന്നു തോന്നുന്നതും ഈ വാട്സപ്പ് തന്നെയാണ്